ആ എനിക്കിപ്പം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ ആയിട്ടുള്ളത് ഒരു ഇലക്ട്രോണിക് ഉപകരണമാണ് അതായത് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു സാംസങ്ങിൻ്റെ ഒരു ടി വി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിനെക്കുറിച്ചാണ് ഞാനിപ്പം പറയുന്നത് അതൊരു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ബ്രാൻഡ് ആണ് സാംസങ് അതുകൊണ്ടാണ് ഞാൻ ആ ടി വി വാങ്ങിച്ചപ്പോഴും സാംസങിലേക്ക് തന്നെ പോയത് അത് പ്രത്യേകിച്ച് മറ്റ് ബ്രാൻഡുകളെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ടി വിയുടെ ക്ലാരിറ്റിയിലും ഒക്കെ ഏറ്റവും ടോപ്പ് ആയിട്ട് നിൽക്കുന്ന ബ്രാൻഡുകളിൽ ഒന്നാണ് സാംസങ്ങ് അതുകൊണ്ടാണ് എനിക്ക് അത് വളരെ ഇഷ്ടമുള്ളത് അതുപോലെ തന്നെ ഒരു ഇതിന് മുൻപ് ഞാൻ സാംസങ്ങിൻ്റെ കുറേ പ്രോഡക്റ്റുകൾ ഉപയോഗിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായിട്ടും ഒരു ഡി വി ഡി ഡ്രൈവ് ഉണ്ടായിരുന്നു സാംസങ്ങിൻ്റെ അത് കുറേ വർഷങ്ങൾക്കു മുൻപ് ആയിരുന്നു അതുപോലെ തന്നെ ഞാൻ ഇപ്പം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മൊബൈലുകൾ ഇപ്പം ലാസ്റ്റ് യൂസ് ചെയ്യുന്ന ലാസ്റ്റ് യൂസ് ഇപ്പം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇതിന് മുൻപ് രണ്ടു തവണ യൂസ് ചെയ്തതും സാംസങ്ങിൻ്റെ മൊബൈൽ ഫോൺസ് ആയിരുന്നു അപ്പം അതൊക്കെ ആ ഒരു അതൊക്കെ യൂസ് ചെയ്ത വഴി എനിക്ക് സാംസങ് എന്ന് പറഞ്ഞ ആ ഒരു ബ്രാൻഡിനോട് ഒരു പ്രത്യേക ഇഷ്ടം ഉണ്ട് പ്രത്യേകിച്ച് അതിൻ്റെ ഒരു മൊബൈലിൻ്റെ ആണെങ്കിലും ഒരു ക്ലാരിറ്റി ഒരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുണ്ട് മറ്റു ബ്രാൻഡുകളെ അപേക്ഷിച്ച് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ടി വി വാങ്ങിച്ചപ്പം ഞാൻ നമ്മുടെ സാംസങ്ങിൻ്റെ ടി വിയിലേക്ക് തന്നെ പോയത് കാരണം ഇതിന് മുൻപ് ഞാൻ സാംസങ്ങിൻ്റെ ടി വി വാങ്ങിച്ചുള്ള എക്സ്പീരിയൻസ് ഇല്ല പക്ഷേ ഇത് വളരെ ഒരു നല്ല ഒരു മൊബൈലിൻ്റെയൊക്കെ കെയിസിൽ ആണെങ്കിലും വളരെ നല്ല ഒരു ക്ലാരിറ്റി ഉള്ളതുകൊണ്ടാണ് എനിക്ക് ടി വി വാങ്ങിച്ചപ്പോഴും സാംസങ്ങിൻ്റെ ടി വി വാങ്ങിക്കാം എന്നുള്ള ഒരു ഇതിലേക്ക് എത്തിയത് അപ്പം എൻ്റെ പ്രതീക്ഷ പോലെ തന്നെ വളരെ നല്ല ഒരു ക്വാളിറ്റി ഉള്ള ബ്രാൻഡ് തന്നെയാണ് എന്ന് ഞാനിപ്പം അത് ഈ സാംസങ്ങിൻ്റെ ടി വി യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി ഞാനത് ഓൺലൈൻ ആയിട്ട് സാംസങ്ങിൻ്റെ ഡയറക്റ്റ് അവരുടെ സൈറ്റിൽ നിന്ന് തന്നെയാണ് ആ ടി വി ഓർഡർ ചെയ്ത് എടുത്തിരുന്നത് അതിന് ഏകദേശം അത് ഒരു ഫോർട്ടി ത്രീ ഇഞ്ചിൻ്റെ ടി വി ആയിരുന്നു ആ ഫോർട്ടി ത്രീ ഇഞ്ചിൻ്റെ ടി വി അതിൽ സാംസങ്ങിൻ്റെ സൈറ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് സാധാരണ മറ്റു കടകളിൽ കിട്ടുന്നതിനേക്കാളും കുറച്ചും കൂടെ ഓഫറിലാണ് അത് കിട്ടിയത് അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ടുള്ള പർച്ചേസിന് വേറെ സ്പെഷ്യൽ ഓഫറും ഉണ്ടായിരുന്നു അപ്പം അതെല്ലാം അവെയിൽ ചെയ്തിട്ടാണ് ഞാൻ എനിക്ക് ആ ഓഫർ ആ ടി വി കിട്ടിയത് അതുകൊണ്ട് തന്നെ കംപാരിറ്റീവിലി ഇപ്പം നമ്മുടെ പുറത്തുള്ള കടകളിലേക്കാളും നല്ല ഒരു വിലക്കുറവിൽ തന്നെ അത് കിട്ടിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ സർവീസിംഗ് ആണെങ്കിലും വളരെയധികം ഫാസ്റ്റ് ആയിരുന്നു സർവീസിംഗ് ഞാൻ ഉദ്ദേശിച്ചത് അതായത് അതിൻ്റെ നമ്മുടെ കയ്യിൽ ഈ സാധനം ഓർഡർ ചെയ്ത് കിട്ടി കഴിഞ്ഞിട്ട് അതിൻ്റെ സർവീസ് സെൻ്ററിൽ നിന്ന് സർവീസ് എക്സിക്യൂട്ടീവ്സ് വന്ന് ആണ് ഇതെല്ലാം കണക്റ്റ് ചെയ്ത് തന്നത് ഒരു നല്ല ഡെമോ ഒക്കെ നമ്മളെ കാണിച്ചിട്ട് ശേഷം ആയിരുന്നു അവർ അതൊക്കെ കണക്റ്റ് ചെയ്ത് തന്നത് അത് വളരെ നല്ല രീതിയിലുള്ള ഒരു സർവീസ് ആയിരുന്നു അവർ പ്രൊവൈഡ് ചെയ്തിരുന്നത് അതിന് ക്യാഷ്ലെസ്സ് ആയിരുന്നു പ്രത്യേകിച്ച് നമ്മൾ പൈസയൊന്നും അതിന് വേണ്ടി കൊടുത്തിട്ടില്ല അത്ര എല്ലാ ബ്രാൻഡുകളും അങ്ങനെ തന്നെയാണ് എന്നാൽ അതുപോലെ തന്നെ സാംസങും ആ ഒരു രീതിയിൽ തന്നെ എനിക്ക് അതിൻ്റെ ആഫ്റ്റർ സെയിൽസ് എല്ലാം ചെയ്തുതന്നു അതുപോലെ തന്നെ ഇപ്പം അത് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് എനിക്ക് ഞാൻ മുൻപ് പറഞ്ഞത് പോലെ തന്നെ എനിക്ക് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലെങ്കിൽ ഏറ്റവും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള റിവ്യൂ ആയിട്ട് എനിക്ക് പറയാനുള്ളത് അതിൻ്റെ ക്ലാരിറ്റി തന്നെയാണ് മറ്റ് ബ്രാൻഡുകളെ അപേക്ഷിച്ച് വളരെയധികം ഒരു ബ്രാൻഡ് ഒരു ക്വാളിറ്റി ഉള്ള ഒരു ബ്രാൻഡ് തന്നെയാണ് സാംസങ് അതുകൊണ്ടു തന്നെ ഞാൻ ഇനിയാണെങ്കിലും ഒരു ടി വി അല്ലെങ്കിൽ അതുപോലെയുള്ള എന്ത് പ്രോഡക്റ്റ് എടുക്കുമ്പോഴും അത് തീർച്ചയായിട്ടും സാംസങ് തന്നെ ഞാൻ എടുക്കും അതുപോലെ തന്നെ സാംസ മറ്റ് ആളുകൾക്ക് തീർച്ചയായിട്ടും അത് റഫർ ചെയ്യുകയും ചെയ്യും